കൂടുതൽ അംഗീകാരം ആവശ്യമുള്ള കലാരു കലാരൂപങ്ങളാണ് കഥകളി മോഹിനിയാട്ടം കുച്ചുപ്പിടി അതു പോലെ തന്നെ ഓട്ടംതുള്ളൽ അങ്ങനെയുള്ള കലാരൂപങ്ങളാണ് കൂടുതലായിട്ടും നമ്മള് പ്രാധാന്യം കൊടുക്കേണ്ടത് അവർക്കു അതിൻറ്റേതായ നിലനിർത്താൻ വേണ്ടീട്ട് അവർക്കു ധനസഹായങ്ങളൊക്കെ ഗൺമെൻറ് നൽകുന്നുണ്ട് പിന്നെ ആ കലാരൂപങ്ങള് നാമ് ഈ തലമുറയോടെ നിന്ന് പോകുവാണെങ്കില് ഒരു പുതുതലമുറയ്ക്ക് അതൊരു ചിത്രം മാത്രമായിരിക്കും സമ്മാനിക്കുക അതിൻറ്റെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അത് നിലനിർത്തി കൊണ്ടോ ആണെങ്കില് അത് പുതു തലമുറയ്ക്ക് ഒരു കൗതുകമായിരിക്കും അതു പോലെ തന്നെ ഒരു ചിത്രത്തിൽ ചിത്രത്തിലൂടെ അതൊതുങ്ങിപ്പോവാതെ പിന്നീടും അത് യാഥാർഥ്യമായി മാറുകയും ചെയ്യുന്നു